ഹലോ കാലക്രമേണ മലയാള ഭാഷയിൽ വന്ന മാറ്റങ്ങൾ വളരെ വിപുലമാണ് മലയാളത്തിൻ്റെ വേരുകൾ പഴയ തമിഴിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു കാലങ്ങളിലൂടെ മലയാളം സ്വന്തമായി ഒരു ഭാഷാരൂപമായി വികസിച്ചു ആദ്യകാലത്ത് സംസ്കൃതത്തിൻ്റെ സ്വാധീനം മലയാളത്തിൽ വളരെ കൂടുതലായിരുന്നു മണിപ്രവാള ശൈലി എന്നറിയപ്പെടുന്ന ഈ മിശ്രണം സാഹിത്യത്തിൽ പ്രകടമാണ് പിന്നീട് മലയാളം കൂടുതൽ സ്വാതന്ത്ര്യമായി വികസിക്കുകയും തനതായ ഒരു ഭാഷയായി മാറുകയും ചെയ്തു ആദ്യ കാലത്ത് സംസ്കൃതത്തിൻ്റെ സ്വാധീനം മലയാളത്തിൽ വളരെ കൂടുതലായിരുന്നു മണിപ്രവാള ശൈലി എന്നറിയപ്പെടുന്ന ഈ മിശ്രണം സാഹിത്യത്തിൽ പ്രകടമാണ് പിന്നീട് മലയാളം കൂടുതൽ സ്വതന്ത്രമായി വികസിക്കുകയും താനതായ ഒരു ഭാഷയായി മാറുകയും ചെയ്തു കൊളോണിയൻ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീന്യം മലയാളത്തിൽ പ്രകടമായി ഇത് മലയാള പദാവലിയെ എന്നതിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് മലയാളം കൂടുതൽ സ്വാതന്ത്യമായി വികസിക്കുകയും ചെയ്തു ആദ്യകാലത്ത് സംസ്കൃതം സ്വാധീനം മലയാളത്തിൽ വളരെ കൂടുതലായിരുന്നു മണിപ്രവാള ശൈലി എന്നറിയപ്പെടുന്ന ഈ മിശ്രണം സാഹിത്യത്തിൽ പ്രകടമാണ് പിന്നീട് മലയാളം കൂടുതൽ സ്വതന്ത്രമായി വികസിക്കുകയും താനതായ ഒരു ഭാഷയായി മാറുകയും ചെയ്തു കാലക്രമേണ മലയാളത്തിൻ്റെ വേരുകൾ പഴയ തമിഴിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു കാലങ്ങളിലൂടെ മലയാളം സ്വന്തമായി ഒരു ഭാഷാരൂപമായി വികസിച്ചിരിക്കുന്നു നാാം പറയുന്ന മലയാളം ശരിക്കുമുള്ള മലയാളം തന്നെയാണോ അത് നിങ്ങൾക്കും അറിയില്ല പക്ഷെ അച്ചടി ഭാഷ അച്ചടി മലയാളം നമ്മളിൽ പലർക്കും ഇന്നും അറിയത്തില്ല നമ്മൾ പറയുന്ന മലയാളം ഒരു അതൊരു മലയാളമായി കണക്കാക്കാൻ പറ്റില്ല ശരിക്കുമുള്ള മലയാളം അത് അച്ചടി മലയാള ഭാഷയാണ് നമ്മുടെ തായ് ഭാഷ അഥവാ നമ്മുടെ അമ്മ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് ഓരോരുത്തർക്ക് അവരുടേതായ ഭാഷകളുണ്ട് എങ്കിലും മലയാളമാണ് നമ്മുടെ ഭാഷ നമ്മൾ മലയാളികളിൽ ഏറ്റവും കൂടുതൽ പറയുന്നതും നമ്മൾക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഭാഷയും കൂടിയാണ് മലയാളം മലയാളത്തിന് എപ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയും അതിൻറേതായ ഒരു സ്വാധീനവും ഇവിടെ പോയാലും ലഭിക്കുന്നതാണ് നമ്മൾ മലയാളികളാണ് എന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും ആഹ്ളാദിക്കുകയും വേണം നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആദ്യകാലത്ത് സംസ്കൃതത്തിൻ്റെ സ്വാധീനം മലയാളത്തിൽ വളരെ കൂടുതലായിരുന്നു മണിപ്രവാള ശൈലി എന്നറിയപ്പെടുന്ന ഈ മിശ്രണം സാഹിത്യത്തിൽ പ്രകടമാണ് പിന്നീട് മലയാളം കൂടുതൽ സ്വതന്ത്രമായി വികസിക്കുകയും തനതായ ഒരു ഭാഷയായി മാറുകയും ചെയ്തിരിക്കുന്നു നാം എല്ലാവരും മലയാളം വളരെ നല്ല പോലെ തന്നെ വായിക്കുവാനും എഴുതുുവാനും സംസാരിക്കുവാനും നമ്മളെ എല്ലാവരെ കൊണ്ടും നല്ല പോലെ കഴിയുന്നു ഇത് നാം ശ്രദ്ധിക്കുകയും തനതായ രീതിയിൽ മലയാളം സംസാരിക്കുകയും അച്ചടി ഭാഷയിൽ മലയാളം പറയുകയും ചെയ്യുന്നു മലയാള ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിലാണ് അതിൽ നിന്നും വന്ന മാറ്റം ഇപ്പോഴും നമ്മൾ ആ മലയാളം തുടരുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്